ഒന്നിലധികം തവണ വായിച്ച പുസ്തകം എന്ന് പറയുകയാണ് പറഞ്ഞാൽ ഇപ്പോൾ കർണ്ണനെക്കുറിച്ചൊരു പുസ്തകമുണ്ട് മഹാഭാരതത്തിൽ കർണ്ണൻ്റെ ഒരു എന്താ പറയുക അവിസ്മരണീയമായ അല്ലെങ്കിൽ ഒഴിച്ച് കൂടാൻ പറ്റാത്ത ഒരു കഥാപാത്രം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിത രീതി പെരുമാറ്റം അദ്ദേഹത്തിൻ്റെ എന്താ പറയുക ആരെയും ഭയ ഭയക്കാതെ എന്നാൽ ആരെയും ഭയപ്പെടുത്താതെ ഉള്ള ഒരു ജീവിതം അദ്ദേഹം ത്യാഗം അല്ലെങ്കിൽ സുഹൃത്ബന്ധത്തിനു വേണ്ടി എന്തു വേണമെങ്കിൽ ഉപേക്ഷിക്കും അല്ലെങ്കിൽ എന്ത് വേണമെങ്കിൽ ത്യാഗം ചെയ്യുമെന്നുള്ള ആ ഒരു മനസ്സ് പറഞ്ഞ വാക്കിനു വില കൽപ്പിക്കുന്ന ആ ഒരു ദൃഢത ഇതൊക്കെ നമ്മൾ പിന്നെയും പിന്നെയും വായിക്കുന്ന നമുക്ക് മനസ്സിന് ഒരു എന്താ പറയുക അങ്ങനെ അദ്ദേഹത്തെ പോലെ ആകണം എന്നുള്ള ഒരു ഇത് പക്ഷെ ആൾ ചെന്നു പെട്ട സ്ഥലം നമ്മൾ നോക്കുവാണെ ഇപ്പം അത് വായിക്കുന്ന സമയം നമ്മൾ ഇപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു നെഗറ്റീവ് ഇമേജാണെങ്കിലും അയാളാ നെഗറ്റീവ് ഉള്ള സ്ഥലത്തും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കേരക്ടർ റോ കേരക്ടർ റോളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തൻ്റെ സുഹൃത്തിനു വേണ്ടി അല്ലെങ്കിൽ താൻ അദ്ദേഹം കൊടുത്ത വാക്കിനു വില നൽകി അത് ജീവൻ നഷ്ട്ടപ്പെടുമെന്നുള്ള ഉറപ്പ് ഉണ്ടായിട്ട് കൂടി അല്ലെങ്കിൽ അറിഞ്ഞിട്ട് കൂടി പറഞ്ഞ വാക്കിനു വില കൽപ്പിക്കുന്ന ആ ഒരു രീതി ഇപ്പം നമ്മുടെ പല ആളുകളിലും നമ്മുടെ നാട്ടിൽ കാണാൻ പറ്റാത്തൊരു രീതി അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അത് ഇത് എനിക്ക് മികച്ചതായിട്ട് തോന്നിയിട്ടുണ്ട് അത് വീണ്ടും വീണ്ടും വായിക്കാനും അതിനെ കുറച്ചും കൂടി ഓരോ തവണ വായിക്കുമ്പോഴും നമുക്ക് അതിൻറ്റേതായ അർത്ഥങ്ങൾ അനുമാനങ്ങൾ മാറിക്കൊണ്ടിരിക്കും അപ്പം അത് വായിക്കാൻ ഇനിയും താത്പര്യം ഉള്ളതാണ്